ട്രയൽ റണ്ണിങ്ങും അതുപോലെ പ്ലിൻ്റടിക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും നമ്മളുടെ ഓടുന്ന ഈ സ്പ്രിംൻ്റെക്കെ അടിക്കുന്ന സമയത്ത് നമ്മളുടെ ടൈമിംഗ് കൂട്ടാൻ പറ്റും ഓടുമ്പോഴുള്ള ആ ഒരു ടൈമിംഗ് ഗ്യാപ്പ് നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ ഒക്കെ ഓടിയെത്തുക എന്നുള്ളത് നമുക്ക് സ്പ്രിന്റ് അടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇപ്പോൾ എത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു ഏരിയ എത്ര സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്പ്രിൻറ് അടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എത്ര സ്പീഡിൽ നമുക്ക് ഓടി ഈ ഒരു ഏരിയ എത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സ്പ്രിൻറ് അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മൾ എപ്പോഴും വർക്കൗട്ടും പ്രാക്ടീസും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി നല്ല ആക്ടീവ് ആയിരിക്കും നമ്മുടെ ശരീരം എല്ലാത്തിനോടും പൊരുത്തപ്പെടും അതായത് ഇപ്പോൾ നമ്മള് എനർജറ്റിക്ക് ആയിരിക്കും നമുക്ക് എന്ത് കാര്യവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും നല്ലൊരു ചെറുപ്പക്കാരനെ പോലെ തന്നെ എപ്പോഴും നമ്മുടെ ശരീരം ഉണ്ടാകും നമ്മളുടെ എന്ത് കാര്യത്തിനും നമ്മുടെ ശരീരം വഴങ്ങും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല നല്ലൊരു ഉന്മേഷവാനായി തന്നെ എപ്പോഴും ഇരിക്കും നല്ലൊരു മസിൽമാൻ ആയിരിക്കും